ഇപ്പോൾ കേരളത്തിൽ പറയുമ്പോൾ ഒരുപാട് മതങ്ങള് അവൈലബിളാണ് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താ പറയുക ഹിന്ദുമതമുണ്ട് മുസ്ലിംസുണ്ട് ക്രിസ്ത്യൻസുണ്ട് ഇപ്പോൾ വേണമെങ്കിൽ ജൈനമതക്കാർ ബുദ്ധമതം അങ്ങനെ ഒരുപാട് മതത്തിൽപ്പെട്ടവര് ഇപ്പോൾ എന്താ പറയുക നമ്മുടെ ഓൾമോസ്റ്റ് ഇപ്പോൾ കേരളത്തിൽ അവൈലബിളാണ് അപ്പോൾ അവരെ അവരുടേതായ ചില രീതികളും അതൊക്കെയാണ് മുന്നോട്ട് കൊണ്ട് വരുന്നത് ഇപ്പോൾ ഹിന്ദുക്കള് ഇപ്പോൾ പറയുന്നത് എന്താ പറയുക മാംസ ആഹാരങ്ങള് കഴിച്ചിട്ട് അമ്പലത്തിൽ കയറാൻ പാടില്ല അങ്ങനെയുള്ള ഇതൊക്കെയാണ് അവര് പറയുന്നത് അപ്പോൾ അവരുടെ എന്താ പറയുക സംസ്കാരം അങ്ങനെയാണ് കാരണം ഇങ്ങനെ മുട്ട മീൻ അങ്ങനെ ജീവനുള്ള വസ്തുക്കളൊക്കെ കഴിച്ചിട്ട് വരുമ്പോൾ അതായത് ഇറച്ചി മീൻ അങ്ങനെ ഉള്ളതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ കയറാൻ പാടില്ല എന്നാണ് അവരുടെ ഒരു അത് അതേ സമയത്ത് പള്ളിയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല പിന്നെ മുസ്ലിംസിന് എന്താ പറയുക പഴകിയ ഫുഡുകള് കഴിക്കാൻ പാടില്ലാന്നൊക്കെ ഉള്ള കുറേ ഇതുണ്ട് അവർക്ക് കുറേ ഹറാമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നിലവില് ഒരുപാട് പ്രശ്നങ്ങള് സംസ്കാരങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും കുറേ ആൾക്കാരൊക്കെ അത് നോക്കി ജീവിക്കുന്നവരുണ്ട് ഇപ്പോൾ ഇത്തരത്തില് ഒരുപാട് മതങ്ങള് ഇപ്പോൾ കേരളത്തിൽ ഉണ്ട് അപ്പോൾ എല്ലാ മതക്കാർക്കും തുല്യപരിഗണന തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും കൊടുക്കുന്നതും